അദ്ധ്യാപകർ സ്കൂളിൽ പഠിപ്പിക്കേണ്ട നിരവധിയായ കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മളൊരു സമൂഹത്തിലെങ്ങനെ ഇടപഴകണം അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കേണ്ട സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുകയെന്നുള്ളതാണാവശ്യം നല്ല വളരെ ആവശ്യമുള്ള കാര്യമാണ് ഈ ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഉപരിയായിട്ട് അവരെ അവരുടെ ഭാവി ജീവിതത്തിനാവശ്യമായ അവർ സമൂഹത്തിലിടപെടേ ഇടപെടുന്നതെങ്ങനെയാണ് അല്ലെങ്കിലൊരു മറ്റൊരാളെ മറ്റൊരാളെ കാണുമ്പം ആ അവരുമായിട്ടെങ്ങനെ ഇടപെടണം ഇങ്ങനെയുള്ള കാര്യങ്ങളും അതോടൊപ്പം നമ്മുടെ ഭാവി ജീവിതത്തിനാവശ്യമായ പൈസ പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കണം അത് അതൊക്കെ പഠിപ്പിക്കേണ്ടതാവശ്യമാണ് അത് ആ അപ്പോൾ ആ അല്ലാതെ ഈ ബുക്കിലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നത് കൊണ്ടു മാത്രമായില്ല ഒരു പൈസ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഉണ്ടാക്കുക മാത്രം എങ്ങനെ ഉണ്ടാക്കണം എന്ന് മാത്രമല്ല അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതിൻ്റെ ആവശ്യകത അങ്ങനെ ചെയ്യുന്നതിലുള്ള ഉപകാരങ്ങൾ ഗുണങ്ങൾ ഇതിനെയൊക്കെ ഇത് ഇതൊക്കെ കൂടി ഈ കാര്യങ്ങളൊക്കെ അദ്ധ്യാപകർ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് കുട്ടികൾക്ക് വളരെ സഹായകരമായിരിക്കും അതു പോലെ തന്നെ ഒന്നാണ് ഒരു സമൂഹത്തിലെങ്ങനെയാണ് ഒരു മനുഷ്യൻ ആ ഒരാ ഒരു വ്യക്തിയെ കണ്ടാലെങ്ങനെയാണ് ആ അയാളുമായിട്ടിടപഴകുക അല്ലെങ്കിൽ ക സമൂഹത്ത് ചെയ്യുമ്പോൾ പല പല സാഹചര്യങ്ങളിലൂടെ കടന്ന് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഓരോ ഓരോ വ്യക്തികളിലൂടെ ഓരോ വ്യക്തികളായിട്ടിടപഴകുക അല്ലെങ്കിലോരോ സമൂ പുതിയൊരു സമൂഹത്ത് ചെന്നാലവിടെയെങ്ങനെയാണ് നമ്മൾ ജി മുന്നോട്ട് ജീവിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ അവരുടെ അവരുമായിട്ടിടപഴകുന്ന കാര്യങ്ങളൊക്കെ അദ്ധ്യാപകര് പറഞ്ഞു തരേണ്ടതാണ് പിന്നൊരു കാര്യം പിന്നെ അടുത്തതെന്നു പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനാവശ്യമായ ഒരു അത് ഒരു ഘടകമാണ് അന്ന് മുമ്പ് പറഞ്ഞതു പോലെ തന്നെ പണം പണം ഉണ്ടാക്കാൻ മാത്രം പഠിപ്പിക്കാതെ അല്ലെങ്കിൽ അന്ന ഇന്ന ജോലി ചെയ്താല് ഇത് ഇത്ര ഉണ്ടാക്കാം എന്ന് പറയുന്നതിനേക്കാളുപരി ഒരു പത്ത് രൂപയുമായി വന്നാലും ആ പൈസ എങ്ങനെയാണ് ഉപയോയിക്കേണ്ടത് അല്ലെങ്കിലത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്തിന് വേണ്ടിയൊക്കെയാണ് ചിലവാക്കേണ്ടത് പറ ആ ആ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതും അതോടൊപ്പം തന്നെ പൈസ ഇല്ലാതെ നമ്മുടെ കയ്യിലില്ലാ ഇല്ലാതെ വന്നാലുള്ള കുഴപ്പങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും സമൂഹത്തില് നമ്മൾ നേരിടേണ്ട പ്രശ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു അദ്ധ്യാപകൻ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് വളരെ അവൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിനത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ആ അതു പോലെ തന്നെ ഒരു ഒരു ചെറിയൊരാവശ്യത്തിനായിട്ട് എന്തെങ്കിലൊരു ഓരോ ഓരോ ചെറിയ ചെറിയ ഈ ബുക്കിലുള്ള ചെറിയ ഡെഫിനിഷൻസിലിപ്പോൾ അല്ലെങ്കിലോരോ വാക്യങ്ങൾ പഠിക്കാതെ അത് നമ്മുടെ സമൂഹത്തിൽ അത് പ്രായ പ്രാ പ്രാ നമുക്ക് സമൂഹത്തിലതെന്താ പറയുക സമൂഹത്തിൽ നമ്മൾ ദൈനം ദിനം കാണുന്ന ചില ചില കാര്യങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞാലൊരു ബാങ്കിൽ ചെന്നാൽ നമ്മളവിടെ എങ്ങനെ അവരായിട്ടിടപഴകും അല്ലെങ്കിലൊരു ഒരു ഒരു ഫോമെങ്ങനെ ഫിൽ ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം ആ അത്പോലെന്നെ ആ മറ്റുള്ളവരുമായിട്ടിടപഴകാനും ആ ഇങ്ങനത്തെയൊക്കെ പിന്നെ ബേസിക്കലി ഒരു സ് മ മ മനുഷ്യൻ്റെ ബേസിക് കാര്യമാണ് ശുചി മനുഷ്യനെ വൃത്തിയോടു കൂടി നടക്കാൻ വേണ്ട കാര്യങ്ങളും അതു പോലെ തന്നെ കൈ ഭക്ഷണത്തിനു മുമ്പും ശേഷവും കൈ കഴുകുന്നതിൻ്റെ പ്രാധാന്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ഹൈജീൻ്റെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് തരേണ്ടത് ഒരദ്ധ്യാപകരുടെ ചുമതലയാണെങ്കിൽ മാത്രമാണ് നമ്മളിങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുകയും അതു വഴി ആ കാര്യങ്ങൾ വഴി നമുക്ക് മുന്നോട്ട് ജീവിക്കാനും ഒക്കെ സഹായകം നൽകുന്ന ഇതു പോലെ അദ്ധ്യാപകർ ക്ലാസ്സിലത് പറഞ്ഞ് വിദ്യാർത്ഥികള്ക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോഴാണ്